കർഷകർ മൃഗത്തിൻ്റെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കോഴീൻ്റെ അതായത് കോഴിവളം അതായത് കോഴിൻ്റെ പിന്നെ കാഷ്ടമൊക്കെ നമ്മൾ കോഴിവളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മൾ അതായത് നമുക്ക് വാഴക്കും അങ്ങനെയുള്ള മരത്തിനും കാര്യത്തിനൊക്കെ വളരെ നല്ലതാണെന്നു പറഞ്ഞിട്ട് അതായത് നമ്മൾ കയറ്റി അയക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അതായത് കോഴി ഫാം അതായത് വലിയ കോഴി ഫാം ഒക്കെ ഉള്ള സ്ഥലത്ത് സ്ഥലത്ത് അതായത് കോഴിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ വളമായിട്ടാണ് കൊടുക്കുക പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെത്തന്നെ നമുക്ക് വേണമെങ്കിൽ പറയുക പശുവിൻ്റെ പശുവിൻ്റെ ചാണകം കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് നല്ല വളമാണ് അതായതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളാണെങ്കിലും നമ്മുടെ കൃഷി ആണെങ്കിലും കൃഷിക്കാണെങ്കിലും എല്ലാറ്റിനും നല്ലതാണ് അതായത് കാപ്പിക്ക് മെയിനായിട്ട് കാപ്പിക്കൊക്കെ നല്ലതാണു കാപ്പിക്ക് അതായത് ചാണക വളമൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാപ്പി നല്ല ഫലഭൂവിഷ്ഠമായിട്ട് വളരാനുള്ളൊരു സാദ്ധ്യത കൂടുതലാണ് അങ്ങനെ പിന്നെ ചാണകം ഒക്കെ പിന്നെ വിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വന്തം കൃഷിക്കായിട്ടുപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നല്ലവണ്ണം വളരും അത് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ജൈവ വളമാണ് അതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ജൈവ വളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ